ഹലോ ഞാന് ബിജിത്തിൻ്റെ പേരന്ററായിരുന്നു ഞാന് അമ്മുവിൻ്റെ പേരന്റായിരുന്നു നിങ്ങളുടെ കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്മെൻ്റില് ടി ഡി ആർ എ പഠിക്കുന്ന അമ്മു ജോൺസൺൻ്റെ പേരന്റായിരുന്നു കോളേജെല്ലാം നന്നായിട്ട് പോകുന്നുവല്ലോ അല്ലേ സാറിന് സാറിനവളെ പെഴ്സണലായിട്ട് അറിയാമോ ഓക്കേ ഓക്കേ സന്തോഷം അവള് കോളേജില് ആക്ടിവായിട്ട് നില്ക്കുന്നതാണ് പക്ഷേ വീട്ടില് അത്ര ഇത് ആക്ടിവല്ല ഇവളിപ്പം

അ ആ അ ആ കേള്ക്കുന്നതില് ഒത്തിരി സന്തോഷമുണ്ട് പക്ഷേ നിങ്ങളുടെ അവിടെ കോളേജിലെന്തെങ്കിലും കൗണ്സിലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അല്ല ഞാനിങ്ങനെ പറഞ്ഞുവെന്നൊന്നും അവളോട് പറയേണ്ട കേട്ടോ അവള്ക്കിനിയൊരു വിഷമമായിട്ട് അതുപിന്നെ കൂടുതൽ ഡളളായിപോകാനേ സാധ്യതയുള്ളൂ അപ്പോള് ഇതൊന്നും പറയേണ്ട അ കുറച്ച് ഡളളാകാൻ സാധ്യതയുള്ളത് കൊണ്ടിപ്പോള് അത് പറയേണ്ട അല്ലാതെ സാറിന് എങ്ങനെയെങ്കിലും ഒരു രീതിയില് അവളെ കൂടുതല് ആക്ടിവാക്കത്തക്ക രീതിയില് ഒന്ന് കൗൺസിലിംഗിന് കൊണ്ടുപോവുകയോ അല്ലെങ്കില് എന്തെങ്കിലും വേറെ മാർഗ്ഗങ്ങള് ആലോചിക്കുകയും ചെയ്യാൻ സാധിക്കുമോ സാർ മ്മ് എന്ത് ഇങ്ങനെ മെന്റൽ ഹെൽത്തിൻ്റെയോ

ഓ വളരെ നന്നായിട്ടുണ്ടത് നല്ല ആലോചന എല്ലാ പേരെൻസും അതിന് വളരെ സപ്പോർട്ടുമായിരിക്കും കേട്ടോ

അ പിന്നെ വേണ്ടേ തീർച്ചയായിട്ടും എൻ്റെ കുട്ടിയെ ഞാൻ ഉറപ്പായിട്ടും അയച്ചേക്കാം അമ്മു ഉറപ്പായിട്ടും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ

വീട്ടില് വന്നുകഴിയുമ്പോള് പ്രശ്നമൊന്നുമില്ല പണ്ടത്തെയത്ര ആക്റ്റീവ്നെസൊന്നും ഇപ്പോള് കാണിക്കുന്നില്ല കൂടുതൽ ഓഫായ രീതിയിലൊക്കെ കാണിക്കുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോള് സാറിനെ വിളിച്ച് അന്വേഷിച്ചത് ആ അ ഞങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങള് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പോള് സാറിനോട് പറഞ്ഞത് ഓക്കേ കേട്ടോ അ ഓക്കേ ഓക്കേ ഞാൻ ഇങ്ങനെ വിളിച്ചുവെന്നൊന്നും അവളോട് പറയേണ്ട ശരി അ ഓക്കേ അ കേട്ടോ താങ്ക് യൂ താങ്ക് യൂ സൊ മച്ച്